ഒരു വിനോദസഞ്ചാരി ആയിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ഒരനുഭവം പങ്കുവെക്കാനായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് അത്രയൊരു അനുഭവുമില്ല പക്ഷെ ഞാൻ കോളേജുകളിലും അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ യാത്ര പോകുമ്പോഴാണ് മെയിനായിട്ട് ഒരു ഗൈഡ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അത്തരം ഒരു അനുഭവം ഞാൻ പങ്കു വയ്ക്കാം അപ്പോൾ അവരെക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തെ പറ്റിയിട്ടും നല്ല അറിവുകളുണ്ടാകും അപ്പം അവിടത്തെ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് ഇഷ്ടമാവുക അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് നല്ലത് ഏതൊക്കെ ഫുഡുകളാണ് അവിടെ ഭയങ്കര സ്പെഷ്യലായിട്ട് ഉ ള്ളത് അതേപോലെ തന്നെ ആ ഫുഡുകൾ ഏതൊക്കെ റസ്റ്റോറന്റീന്ന് കഴിച്ചാലാണ് ഏതൊക്കെ റസ്റ്റോറന്റീലാണ് നല്ലതായിട്ട് കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും അറിയുന്നത് ഈ ഗൈഡിനായിരിക്കും അതായത് നമുക്ക് പ്രത്യേകിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവരായിരിക്കും നമ്മളെ തുടക്കം തൊട്ടേ എല്ലാ കാര്യങ്ങളും കൊണ്ട് കാണിക്കുന്നതും ഇതൊക്കെയും അപ്പോൾ എനിക്കത് ചെറുപ്പം മുതലേ ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ സ്കൂളീന്നും അതേപോലെ കോളേജിന്നും അതും പോട്ടെ ഇപ്പോൾ വീട്ടുകാരായിട്ടും പോകുന്ന ട്രിപ്പായാലും നമുക്കൊരു ഗൈഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു വിനോദസഞ്ചാരി ആയിട്ട് അങ്ങനെ സ്ഥലങ്ങളൊന്നും പുതിയ സ്ഥലങ്ങളെ കുറിച്ച് അറിയാനായിട്ടൊന്നും പറ്റില്ല പിന്നെ ഒരു വിനോദ സഞ്ചാരിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ നടന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാറുണ്ട് വെറുതെ നടക്കും അങ്ങനെ ഞങ്ങൾ വലിയ വലിയ ട്രിപ്പ് പോവലില്ല വെറുതെ കോളേജീന്ന് നടക്കും അങ്ങനെ ഓരോ കുഞ്ഞ് ഉൾവഴികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഓരോ പോണ്ട് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള പോണ്ട് അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു പിടിച്ച് എന്നിട്ട് ഞങ്ങളുടെ ക്ലാസിലുള്ള ആൾക്കാരോട് പറയും ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ ഇവിടെ ഒരു ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു അങ്ങനെ അപ്പോൾ ഒരു വിനോദസഞ്ചാരിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കൂട്ടുകാരിനെയാണ് അപ്പോൾ അവൾ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെയും ഭയങ്കര നല്ല രസമുള്ള ഇതാണ് പിന്നെയും ഓർത്തു വയ്ക്കാനുള്ള കുറെ മെമ്മറീസും എനിക്കുണ്ട്